ഞാൻ ഒര് രണ്ട് ഷൂ ആണ് നോക്കുന്നത് ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും എൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒമ്പതാണ് അപ്പോൾ വൈറ്റിലിതുപോലെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഷൂവാണ് ഞാൻ മെയിനായിട്ട് അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ച് സോളും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫ്രന്ഡായിട്ട് വേണം അതുപോലെ ലെയ്സായാലും ഓവറ് വലിപ്പം പാടില്ല ഒരു തിക്കായിട്ടുള്ളതൊക്കെ സാധനം അത്യാവശ്യം ഓവർ വലിപ്പം പാടില്ല എന്നാൽ കാഴ്ചക്ക് സ്റ്റാൻഡേർഡ് ലുക്ക് വേണം അതേപോലെ തന്നെയാണ് വൈറ്റില് നോക്കുന്നത് ദേ രണ്ടും സാമ്യം ഉണ്ടാകണം പക്ഷേ വൈറ്റും ബ്ലാക്കുവാണ് നോക്കുന്നത് അതുപോലെ തന്നെ ക്ലോത്ത് അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്ക് നല്ല ക്വാളിറ്റി ഉള്ളതും വേണം സൈസൊക്കെ കറക്റ്റ് പക്കാ സൈസായിരിക്കണം അതേപോലെ അങ്ങനെ ഒക്കെ ആയിരിക്കണം അതേപോലെ തന്നെ നമ്മള് ഈ സൈഡൊക്കെ കറക്റ്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിരിക്കണം ഈ ഗെമ്മും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ അതുപോലൊന്ന് ഇട്ട് രണ്ട് പ്രാവശ്യത്തേക്ക് പൊളിഞ്ഞ് പോവാത്ത രീതിയിലുള്ള മെറ്റീരിയാലൊക്കെ ആയിരിക്കണം അതുപോലെ വാഷിങ്ങായിരിക്കണം നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതാണെങ്കിൽ അത്രയും നല്ലത് അതുപോലെ സോളൊക്കേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം കണക്കിരിക്കാണ്ട് അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കണം അതുപോലെ നമ്മള് കാലില് വേദന കാര്യങ്ങളൊന്നും പാടരുത് ഇടുമ്പോൾ നല്ല കംഫേർട്ട് ഫീൽ ചെയ്യണം അത്രയും ഉള്ളു പെർഫെക്റ്റ് ആയിരിക്കണം പെർഫെക്റ്റ്